ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പരസ്യം പോകുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള എത്തിക്കാൻ സാധിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഫേസ് ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നമ്മൾ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ അത് പെട്ടെന്ന് ആളുകളിലേക്ക് എത്താനുള്ള സാഹചര്യം ഇപ്പോൾ കൂടുതലാണ് കൂടുതൽ ആളുകളും ഇപ്പൊൾ സോഷ്യൽ മീഡിയ ആണല്ലോ ഉപയോഗിക്കുന്നത് അപ്പ ആ വഴിയെ പരസ്യം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തില് ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യുന്നത് കുട്ടികൾക്കിഷ്ട്ടപ്പെട്ട രീതിയിൽ പരസ്യം ചെയ്യുവാണെങ്കിൽ കുട്ടികൾ വഴി അത് മാതാപിതാക്കളിലേക്കും മറ്റുള്ളവരിലേക്കും അത് പടരാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതൽ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിഠായിയോ അല്ലങ്കിൽ കുട്ടികൾക്കിഷ്ടം ഇപ്പൊ സ്കൂൾ ടൈം ആയത് കൊണ്ട് ബാഗ് കൊട ബുക്ക് അതിലൊക്കെ വെറൈറ്റിയായിട്ടുള്ള എന്തെങ്കിലും സംഭവം കൊണ്ടുവന്നിട്ട് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് സോഷ്യൽ മീഡിയ വഴി മുന്നോട്ടു പോകുവാണെങ്കില് ഏറ്റവും കൂടുതല് ആ പരസ്യം മുന്നോട്ട് നിക്കും